എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പത്രം മലയാള മനോരമയാണ് ഞാൻ ദിവസേന വായിക്കുന്നതും മലയാള മനോരമ തന്നെയാണ് അതിൽ അനേകം രാഷ്ട്രീയത്തെ പറ്റിയും സ്പോർട്സിനെ പറ്റിയും കായികപരമായിട്ടുള്ള ന്യൂസും വാർത്തകളും രാഷ്ട്രീയപരമായിട്ടുള്ളതും എന്നാൽ പുതു ലോകത്തെ കുറിച്ചുള്ളതുമായിട്ടുള്ള അനേകം വാർത്തകളുണ്ട് എനിക്കിഷ്ടമില്ലാത്ത വാർത്ത പത്രം ഹിന്ദു പോലുള്ള ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കാൻ എനിക്കധികം ഇഷ്ടമില്ല എന്നാലത് ഞാൻ വായിച്ച് നോക്കിയിട്ടുണ്ട് അതും തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെ ആയിരുന്നു സമ്മാനിച്ചത് സാധാരണയായി മലയാളം പത്രങ്ങളിലും മറ്റും എന്താണ് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കുറവാണ് കേൾക്കാറ് എന്നാൽ ഹിന്ദു പോലുള്ള പത്രങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കാണിക്കുന്നതായും അതുമാത്രമല്ല കേന്ദ്രവുമായി ബന്ധപ്പെട്ടതായാലും അങ്ങനെ രാഷ്ട്രീയ തരത്തിലുള്ള ഉന്നത രാഷ്ട്രീയ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ അതിൽ എഴുതി വച്ചിരിക്കുന്നതായിട്ടും വളരെ നല്ല രീതിയിൽ അതിൽ കാണിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് നല്ല വ്യത്യാസമാണ് തോന്നിയിട്ടുള്ളത് സ്ഥിരമായി വായിച്ച് ശീലിച്ച ഹിന്ദു എന്ന് പറയുന്ന പത്രം തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം വളരെ നല്ല പത്രം തന്നെ ആണത് പക്ഷെ എന്നിരുന്നാലും അനേകം വാർത്തകൾ ഉള്ളത് കൊണ്ട് തന്നെ അത് ചില സമയങ്ങളിൽ അധികം നഷ്ടമില്ലാത്ത രീതിയിലുമൊക്കെ തോന്നിയിട്ടുണ്ട്